ഇന്നത്തെ പാലക്കാടെന്ന ഈ ഡിസ്ട്രിക്റ്റിൽ ഒട്ടുമിക്ക പേരും ഹൈന്ദവ സമുദായത്തിലും ഇസ്ലാമിക സമുദായത്തിലും പെട്ടവരാണ് ക്രൈസ്തവ സമുദായത്തിൽ പെട്ടവരുടെ എണ്ണം തികച്ചും വളരേ കുറവാണ് ഇവർക്കിടയിലുള്ള സമ്പർക്കങ്ങൾ ഇവിടെയാർക്കും ജാതിമത ഭേദ വ്യത്യാസങ്ങളൊന്നുല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷവും ആനന്ദകരമായ നിമിഷങ്ങളിൽ പങ്കുചേർന്നു കൊണ്ട് തുടർ ജീവിതം നയിക്കുന്നവരാണ് ഇവരുടെ സമ്പർക്കങ്ങൾ ഒരുമിച്ചു നടത്തുന്ന സമ്പർക്കങ്ങൾ തികച്ചും ഉത്സവ തര ഉത്സവ പ്രതീതിയാണ് ഇവർ ഒരുമിച്ചൊരു സംരംഭം തുടങ്ങുകയോ ഒരു സമ്പർക്കവും പുലർത്തുന്ന സാഹചര്യമുള്ള ഒരു ഉത്സവത്തിനു അതീതമാണ് കാരണം ഇപ്പോഴോരു സാഹചര്യത്തിൽ ഓണമെന്നൊരു ഉത്സവ പ്രതീതി എടുക്കുകയാണെങ്കിൽ ഇരു വിഭാഗക്കാരും അതായത് ഇസ്ലാമികളാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ഹൈന്ദവരാണെങ്കിലും ഒരുപോലെ കണ്ട് ആസ്വദിച്ച് അവർ ആഘോഷിക്കുന്ന ഒരു ഉത്സവം ആണ് ഓണം ഇതുപോലെയാണ് വിഷു ദീപാവലി ക്രിസ്തുമസ് ഇസ്ലാമികരുടെ ഏറ്റവും പുണ്യ പുരാതനമായ ഒരു ദിവസമാണ് നബിദിനം അതുപോലും ഇന്നത്തെ ഹൈന്ദവരും ക്രൈസ്തവരും ഒരുപോലെ ആഘോഷിക്കുന്നത് ഇസ്ലാമിക സമുദായത്തിൽപ്പെട്ട ഒരാള് തൻ്റെ നബിദിനം ഇന്ന് അത്രേയും പുണ്യ പുരാതനമായ ദിവസത്തിൽ തൻ്റെ സഹപാഠികളോ സുഹൃത്തുക്കളോ ആയ ഹൈന്ദവനെയോ ക്രൈസ്തവനെയോ തൻ്റെ വീടുകളിൽ ക്ഷണിച്ച് അവർക്കവരുടേതായ ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് കൊടുക്കും വിളമ്പിക്കൊടുക്കുകയും അയൽപക്കത്തുള്ള മറ്റുജാതി ആൾക്കാർക്കത് വിതരണം ചെയ്യുന്ന തരത്തിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യം വളർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ആർക്കും ജാതിയെന്ന വ്യത്യാസത്തിൽ ഒരാളെയും അടിച്ചമർത്തുകയോ അടച്ചാക്ഷേപിക്കുകയോ തമ്മിൽ നിന്ന് വിട്ടുകളയുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്ന ഒരാൾക്കാരല്ല ഇന്നത്തെ കേരളീയ സമൂഹം കേരളയിൽ ഇന്നത്തെ പാലക്കാടിലെ ജനതകൾ അവരെല്ലാവരും അവരുടേതായ കാര്യങ്ങളിൽ മറ്റു ജന മതക്കാരെയും മറ്റ് ജാതിക്കാരെയും മറ്റു ഭാഷക്കാരെയും ഉൾപ്പെടുത്തി ആഘോഷങ്ങൾ നേടുന്നവർ ഭാഷകളെന്നു പറയുമ്പോൾ ഇന്ന് അന്യ സംസഥാനത്ത് നിന്ന് ഒരുപാട് അഭയാർത്ഥികൾ ഇന്ന് ഈ പാലക്കാട് ജില്ലയിലുണ്ട് ജോലി തേടി വന്നവർ വ്യവസായം ചെയ്യാൻ വന്നവർ പലതരത്തിൽ തമിഴ്നാട് നിന്നും ബംഗാളിൽ നിന്നും കർണാടക ഒരുപാട് പേരവിടത്തെ അവർക്കവരുടെ കുടുംബം മുന്നോട്ട് നയിക്കാനായി കഷ്ടപ്പെടാനായി ഇന്ന് ഈ പാലക്കാട് ജില്ലയിലും ഒട്ടനവധി പേരുണ്ട് അവരെപ്പോലും അന്യ സംസ്ഥാനത്തിൽ നിന്ന് വന്ന ഒരാളല്ലേ അവരെ ഒഴിവാക്കണം എന്ന തരത്തിലാരും ചിന്തിക്കാണ്ട് അവരും നമ്മുടെ ജില്ലയിലൊരാളാണ് അവരും നമ്മുടെ കൂട്ടത്തിലൊരാളാണ് എന്ന തരത്തിൽ ചിന്താഗതി വളർത്തിക്കൊണ്ട് അവരെ ഇന്നത്തെ അവരുടേയും ഇവരുടേയും ആഘോഷങ്ങളിൽ പങ്കു ചേർത്തിക്കൊണ്ട് ഒരുപോലെ ആനന്ദം കണ്ടെത്തുന്നവരാണ് ഇന്ന് പാലക്കാട് ജില്ലയിലെ ഒട്ടനവധി എല്ലാ കുടുംബക്കാരും ഇവിടെ ആർക്കും മതമോ ജാതിയോ നിറമോ ഭാഷയോ ഒരു വ്യത്യാസമല്ല എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇന്നത്തെ പാലക്കാട് സമൂഹം ഇവർ